മത്സ്യത്തൊഴിലാളികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോന്നെച്ച്ട്ട്ണ്ടങ്കില് പിന്നെ അവരേത് ജാതിയില് അവരേത് സംഘത്തിലുള്ളവരാണെന്ന്പ്പോ ചോയിക്കുവാണെങ്കിലിപ്പം നമ്മളിപ്പം അവര്ന്നൊക്കെ പറയാണെങ്കില് ജാതി മത ഭേദമന്യേ ആയിരിക്കും ഇപ്പോ എല്ലാവരും കൂടുതലും മത്സ്യ തൊഴിലിനും കാര്യത്തിനൊക്കെ പോവുന്നത് ഇപ്പോ തൊഴിലിന് നമ്മളിപ്പം ഏതൊരു തൊഴിലിന് പോകുമ്പോളും നമ്മൾ ജാതി കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ നോക്കാറില്ല ജാതി സംഘവും കാര്യങ്ങളൊന്നും നോക്കാറില്ല ഇപ്പോ മത്സ്യ തൊഴിലാളികളുടെ കാര്യം പറയാണെങ്കില് അവരൊക്കെ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒര് സമുഹായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ആൾക്കാരാണ് കാരണന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് അവര് ഒരുമിച്ച് കടലില് അതായത് മീൻ തേടി പോവുന്നു ഒരുപാട് മീന് കാര്യങ്ങളൊക്കെ ആയിട്ട് വെരുന്നു അതായത് ആ ഒര് അവര്ടെ അതായത് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് മത്സ്യത്തൊഴിലാളി മത്സ്യതൊഴിലാളികളല്ല ഇപ്പോ ഏതൊരു ജോലി ചെയ്യുന്നവരാണെങ്കിലും ആ ഒരു ഇതിൽതന്നെ കഷ്ടപ്പെടുന്ന ആൾക്കാര് തന്നെയാണ് അപ്പംന്ന് വെച്ചിയിട്ട്നണ്ടങ്കില് പിന്നേന്ന് വെച്ട്ടുണ്ടങ്കില് അവരുടെ ഉത്സവങ്ങള് കാര്യങ്ങള് എന്നുവെച്ചിടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മതപരമായിട്ട്ളള ഉത്സവങ്ങളാണെങ്കിൽ കൂടുതലും അമ്പലങ്ങളിലും ഒക്കെള്ള ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ടാവും പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഏറ്റവും കൂടുതൽ ആഘോഷിക്കണത് എന്താന്നെച്ചിട്ടുണ്ടങ്കില് ഒരുപാട് മീന് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവര് അതായത് ഒരുപാട് ചാകര കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവര് അങ്ങനെ ആ ഒര് സന്തോഷം അവര് ഉത്സവായിട്ട് ആഘോഷിക്കും